ഹലോ ആരായിരുന്നു ആ അതെയല്ലോ ആരാണു വിളിക്കുന്നത്

ആ അപ്പോള് ഇതിനു മുന്നെ മറ്റ് എന്നാ ഡാൻസേതെങ്കിലും പഠിച്ചിട്ടുണ്ടോ അതോ നിലവില് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ

ആ ആ അത് നമ്മള്ക്ക് നമ്മള് കഥകളി പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സ്റ്റാര്ട്ടിങ്ങ് നമ്മള്ക്ക് ഒരു മാസത്തെ കോഴ്സുണ്ട് മൂന്ന് മാസത്തെയുണ്ട് പിന്നെ മൂന്ന് വർഷമാണിത് ടോട്ടല് കംപ്ലീറ്റാവണമെങ്കില് മൂന്ന് വർഷത്തോളം എടുക്കും കാരണം ആ അപ്പോള് അതിൻ്റെ സ്റ്റാർട്ടിങ്ങ് ഒരു മാസമെന്നു പറഞ്ഞ അത് ബെയ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ പേയ്മെന്റ് ഒരു മാസത്തേക്കാണെങ്കില് ഒരു പതിനയ്യായിരം രൂപയാകുവേ കാരണം ആ ബെയ്സ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല എന്നായിത് നമ്മള്ക്ക് എന്തെങ്കിലും ഒരു പരിപാടി സ്റ്റേജേക്കേറി അവതരിപ്പിക്കാനാണെങ്കില്പ്പോലും നമ്മള്ക്കൊരു മിനിമമൊരു മൂന്നു മാസത്തെയെങ്കിലും എന്നാ ക്ലാസ്സ് അറ്റൻറ്റെയ്തിരിക്കണം

മൂന്ന് മാസത്തേനാണെങ്കിലൊരു അമ്പതിനായിരം അറുപതിനായിരം രൂപയോളമാവും കഥകളി എന്നു പറയുമ്പോള് നമ്മള് നന്നായിട്ട് ഒത്തിരി വർക്കെയ്തു പഠിക്കേണ്ട ബാക്കിയുള്ളൊരു സിനിമാറ്റിക്ക് ഡാൻസ് പോലെയോ അല്ലെങ്കില് ക്ലാസ്സിക്കൽ ഡാൻസ് പോലെയോ അല്ലല്ലോ അത് ഒത്തിരി വർക്കെയ്യെണ്ടതാ

റെയ്റ്റില് വ്യത്യാസം വരുകയില്ല കാരണം നമ്മള് എന്നാ ഒരാള് തന്നെയല്ല ഇതിൻ്റെ ഓരോ ഇതും പഠിപ്പിക്കുന്നതും മറ്റ് അദ്ധ്യാപകരുംകൂടെ കൂടിയല്ലേ അപ്പോള് ഇവർക്കെല്ലാവരും നമ്മള് നമ്മള് സാലറി കൊടുക്കേണ്ടതല്ലേ അപ്പോഴതുകൊണ്ട് ആഴ്ചയില് ആഴ്ചയില് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുണ്ട് നിങ്ങൾക്ക് ഏതൊക്ക ദിവസങ്ങളില് വരാൻ സാധിക്കും അതു പറഞ്ഞാല് മതി അതിനനുസരിച്ച് ഞങ്ങള് അഡ്ജസ്റ്റെയ്തോളാം രണ്ടു ദിവസത്തെ രണ്ട് ദിവസമാണ് വരാൻ സാധിക്കുന്നതെങ്കില് ഏതൊക്കെ ദിവസങ്ങളാണെന്നു പറഞ്ഞാല് മതി അതനുസരിച്ച് അഡ്ജെസ്റ്റെയ്ത് ഞങ്ങള് ക്ലാസ്സെടുത്തു തന്നോളാം ആ വരുന്ന ദിവസം ഒരു മണിക്കൂര് അല്ലെങ്കില് രണ്ടു മണിക്കൂര് വീതം ക്ലാസ്സെടുത്തു തരാം ആ കാരണം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കാരണം നിങ്ങള് ദൂരെ നിന്നാണു വരുന്നതെങ്കില് കാരണം വരുന്നതിന്റെ ആ ഒരു ചെലവും ഇതെല്ലാംകൂടെ നിശ്ചയ്ച്ചിട്ട് വേണമല്ലോ നമ്മള് ക്ലാസ്സെടുക്കാനായിട്ട് അപ്പോഴതനുസരിച്ച് ആ ഉണ്ട് ഉണ്ട് ആ ഉണ്ട് ഉണ്ട് ഉണ്ട് എന്തോ പുതിയതായ്ട്ട് ജോയിൻ ചെയ്തേക്കുന്നതെന്നു പറയാനായിട്ട് എന്നാ അഞ്ച് പേരേ ഉള്ളു എൻ്റെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനില് ഏകദേശമൊരു മുപ്പത് നാല്പതോളം കുട്ടികള് ഇതേ കഥകളി തന്നെ പഠിക്കുന്നുണ്ട് ആ അവരൊക്ക വർഷങ്ങളായിട്ട് ഇപ്പോഴൊരു വർഷം കംപ്ലീറ്റായവരുണ്ട് രണ്ടു വർഷം കംപ്ലീറ്റായവരുണ്ട് മൂന്നാമത്തെ വർഷം എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെ എന്നാ പല സെക്ഷനായിട്ടാണ് ഈ നാല്പത്തിയഞ്ചു പേരും പല സെക്ഷനിലായിട്ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പുതിയതായ്ട്ട് ഒരഞ്ചു പേരേ ഉള്ളു മൂന്നു വർഷം പഠിക്കുന്നതിന് ഏകദേശം നല്ല തുകയാവും ഒരു ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയോളം മുകളിലാവും ആ ആയ്ക്കോട്ടെ അപ്പോള് നിങ്ങളുടെ ഇത് ഈ നമ്പര് എന്നാ വിളിച്ചുകഴിഞ്ഞാല് കിട്ടുന്ന ഇത് സ്വന്തം പേഴ്സണൽ നമ്പര് തന്നെയല്ലേ ആയ്ക്കോട്ടെ ഓക്കെ